ഡിഗ്രി ഡിഗ്രി കോഴ്സ് പഠിച്ച ഒരുപാട് കുട്ടികളെ നമുക്ക് അറിയാം അവർ സ്വയം മുന്നേറിയിട്ടാണ് വിജയങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത് അതുപോലെത്തന്നെ പിന്നീടവർക്ക് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഇപ്പം പഠിക്കാനും പഠിപ്പിക്കാൻ കഴിവില്ലാത്ത ഫാമിലിയ്ക്ക് സ്കോളർഷിപ്പും അതുപോലെത്തന്നെ സഹായങ്ങളെല്ലാം കൈയ്യിൽ കിട്ടിയിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് പിള്ളേർ എന്താ ഉയരങ്ങളൊക്കെ കീഴടക്കിയിട്ടുണ്ടാവുക പിന്നെ അതുപോലെത്തന്നെ പാർടൈമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് പിന്നീട് ജോലിയ്ക്ക് പോയിട്ടൊക്കെയാണ് ഒരുപാടു പേർ പഠിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടും അവരുടെ പൈസ കൊണ്ടവർ എന്താ പഠിച്ച് മുന്നേറുകയാണ് ചെയ്യുന്നത് പിന്നെ സ്കോളർഷിപ്പിലൂടെയും വിജയമുണ്ട് പിന്നെ അവരുടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഓരോ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരെ വിജയങ്ങളിലേയ്ക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്